അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നതും സംരക്ഷിക്കേണ്ടതുമായിട്ടുള്ള ചില ഇന്ത്യൻ കലാരൂപങ്ങളുണ്ടെന്ന് പറയുന്നത് ഉള്ളതാണ് അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇന്ത്യക്കുള്ളൊരു പ്രത്യേകത എന്താണെന്നു പറഞ്ഞാൽ പലതരം ആൾക്കാരാണുള്ളത് എന്ന് പറയുമ്പം നമ്മളിപ്പോൾ വിദേശങ്ങളിലൊക്കെ നോക്കുന്ന പോലെ ഇന്നൊരു വിഭാഗത്തിലുള്ള ആൾക്കാർ മാത്രമേ ആ രാജ്യങ്ങളിൽ കാണുകയുള്ളൂ അല്ലെങ്കിൽ പാകിസ്ഥാൻ നോക്കുകയാണേ ഇന്നൊരു വിഭാഗത്തിലുള്ളാൾക്കാർ മാത്രമേ കാണുള്ളു പക്ഷെ ഇന്ത്യയുടെ പ്രത്യേകത എന്താണെന്ന് വൈവിധ്യമാണ് എന്ന് പറയുമ്പം പലതരത്തിലുള്ളാൾക്കാരും പലതരത്തിലുള്ള കലാരൂപങ്ങളും ഉണ്ട് അപ്പം കലാരൂപങ്ങളെന്ന് പറയാന്നേരത്തെന്താണ് ആ കലകളെ നമ്മൾ കുറച്ചും കൂടി സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നമ്മുടെ കേരളത്തിലൊട്ടു നോക്കുകയാണെങ്കിലിപ്പം കലാരൂപങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതാസ്വദിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് കാരണം ഇപ്പം പലരും പുതിയ പുതിയ കാര്യങ്ങളിലേക്കാണ് പോകുന്നത് അപ്പം നമ്മുടെ ഓട്ടം തുള്ളൽ കാലം നമ്മുടെ കഥകളി നമ്മുടെ കുറച്ച് കലാരൂപങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും തെയ്യം അതൊക്കെ പലയിടത്തും ഇപ്പം നടന്നു വരുന്നുണ്ട് എങ്കിലും അത് കുറച്ച് ക്രമേണ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണിപ്പോൾ ഒരു ഉത്സവത്തിനാണിതൊക്കെ നടത്തുന്നതെങ്കിൽ മിക്കവർക്കിപ്പം ഉത്സവങ്ങളിൽ വേണ്ടതോരോ ഗാനമേളകളോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഡാൻസോ അങ്ങനെ എന്തെങ്കിലൊരു കാര്യങ്ങളൊക്കെയായിരിക്കും വേണ്ടത് അപ്പോൾ ആ ഒരു സമയങ്ങളിൽ നോക്കാൻ നേരത്ത് ഈ ഒരു കലാരൂപങ്ങളെല്ലാം നമ്മളുടെ ഇന്ത്യൻ കൾച്ചറിൽ നിന്ന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണിപ്പോൾ അത് വലിയൊരു നഷ്ടമായിട്ടാണ് ഞാൻ കണ്ടു വരുന്നതപ്പോൾ ഇന്ത്യയിൽ തന്നെ നില നിന്നിട്ടുള്ള കുറേ കലാരൂപങ്ങളുണ്ടല്ലോ മോഹിനിയാട്ടം അങ്ങനെ കുറേ സാനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നൊരു സാധനമാണ് കഥകളി കഥകളിയിപ്പം നടക്കുന്ന നടക്കുന്ന സ്ഥലങ്ങളെവിടെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എനിക്കിപ്പോഴും അറിയത്തില്ല ഇപ്പോഴും അതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് വല്ല കലോത്സവങ്ങളിലോ ആയിരിക്കും അതല്ലാണ്ട് ഒരിക്കലും ഈ കലാരൂപങ്ങൾ മിക്കയിടത്തും കണ്ടു വരാറില്ല